നമ്മുടെ പ്രാദേശിക ഭാഷ മലയാളാണ് ഇപ്പോൾ മലയാളത്തിൽ നമുക്ക് ചാനൽ യൂട്യൂബ് ചാനൽ കുറേയെണ്ണം ഉണ്ട് അതുപോലെ ടി വി പ്രോഗ്രാമുകളും കുറേയുണ്ട് ഇപ്പോൾ നമ്മൾ അതായത് ഇപ്പോൾ മലയാള ഭാഷ നമ്മുടെ ഏഷ്യാനെറ്റായാലും സൂര്യ ആയാലും കൈരളി ആയാലും മഴവിൽ മനോരമ ആയാലും എല്ലാ ഇതിലും ഫ്ലവേഴ്സ് ആയാലും അങ്ങനെ അതിലൊക്കെ കുറേ കുറേ കോമഡി പരിപാടികൾ കാണാൻ ആണ് എനിക്ക് കൂടുതലിഷ്ടം ഇപ്പോൾ യൂട്യൂബ് ചാനലായാലും നമ്മൾ കോമഡിയായിട്ട് ചെയ്യണ പരിപാടികളാണ് ഞാൻ കൂടുതലായിട്ടും കാണാറ് അതിലിപ്പോൾ അതായത് നമുക്കൊരു എൻജോയ്മെന്റ് കിട്ടുവാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് മെയിനായിട്ടും ഉദ്ദേശിക്കണത് ബാക്കി ഈ മറ്റേ ന്യൂസും കാര്യങ്ങളൊക്കെ വെറുതെ അതൊന്നും നമ്മൾ ഞാൻ അത് ശ്രദ്ധിക്കാറില്ല മെയിനായിട്ട് നമുക്ക് മനസ്സിന് കുറച്ച് സന്തോഷവും കാര്യങ്ങളും അങ്ങനത്തെ ഇതാണ് ഞാൻ കാണുന്നത് പിന്നെ വേറെ ഭാഷയിലെന്നു പറയുമ്പോൾ ഇപ്പോൾ തമിഴിലാണെങ്കിൽ സിനിമ കാണും തമിഴിലത്തെ സിനിമകൾ കാണാറുണ്ട് പക്ഷെ അങ്ങനെ പ്രോഗ്രാമുകളൊന്നും ഞാനായിട്ട് അങ്ങനെ കാണാറില്ല പിന്നെ ഇംഗ്ലീഷിൽ വെബ് സീരീസുകൾ കാണും ഇംഗ്ലീഷ് അത്യാവശ്യം ചില വെബ് സീരീസ് എല്ലാമൊന്നും കാണില്ല ചിലത് ഇപ്പോൾ കണ്ടു തുടങ്ങി ഇഷ്ടപ്പെട്ട് തുടങ്ങിയാൽ മാത്രം ഇപ്പോൾ കാണും അങ്ങനെ അതല്ലാണ്ട് പൊതുവെ അധികവും ഞാൻ മലയാള ഭാഷയാണ് കാണാറ്